ഞാനൊരുപാട് പുറത്തു പോകുന്ന ഒരാളാണ് അതുകൊണ്ടു തന്നെ എൻ്റെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കൾ കറുത്ത പാടുകൾ കണ്ണിനടിയിലുള്ള കറുപ്പ് അതുപോലെ തന്നെ സൂര്യാഘാതമേറ്റിട്ട് എൻ്റെ കണ്ണിൻ്റെ അടിയില് കറുപ്പ് വരാനായിട്ട് തുടങ്ങി മാത്രവുമല്ല എൻ്റെ മുഖം ഇരുണ്ട് ഇരുണ്ട് വരാൻ തുടങ്ങി അപ്പം ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തു പക്ഷേ ഒന്നും എനിക്കൊരു ഗുണവും തന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഫേയ്സ് സിറം ഫേയ്സ് സിറം യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഫേയ്സ് സിറത്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് ടൈപ്പ്സ് ഓഫ് ഫേയ്സ് സിറംസ് ഉണ്ടെന്ന് അതായത് വിറ്റാമിൻ സി ഫേയ്സ് സിറം ഉണ്ട് കോജിക്ക് ആസിഡിൻ്റെ ഉണ്ട് ഹൈഡ്രോളിക്ക് ആസിഡിൻ്റെ ഉണ്ട് മാത്രവുമല്ല എല്ലാത്തിനും ഓരോരോ കമ്പനിയും ഉണ്ട് കമ്പനിയുടെ കീഴിൽ ഒരുപാട് ഒരുപാട് ഫേയ്സ് സിറംസ് ഉണ്ട് അപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തു ഞാൻ ഒരു തുടക്കക്കാരിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് സിറം യൂസ് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞു കൂടാ അങ്ങനെ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് എൻ്റെ ഫേയ്സിന് ഏറ്റവും നല്ലത് വിറ്റാമിൻ സി ആണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത് ഈ കുഞ്ഞു കുരുക്കളും കറുത്തപാടുകളും എല്ലാം പോകാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ സി നല്ലതാണ് എന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഏത് കമ്പനിയുടെ യൂസ് ചെയ്യണം എന്ന് നോക്കിയിരിക്കുമ്പഴാണ് ഒരുപാട് നല്ല റിവ്യു കണ്ടത് ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടുപിടിക്കുന്നത് അതാണ് ഗാർണിയർ സ്കിൻ നാച്ചുറൽസിൻ്റെ വിറ്റാമിൻ സി ബൂസ്റ്റർ സിറം എന്ന് പറയുന്നത് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ ആണെന്ന് വെച്ചാല് ഒരു സിറം നമ്മൾ ബേസ് ആയി ബേസിക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ കൈയ്യില് മൂന്നോ നാലോ തുള്ളി എടുത്ത് ജസ്റ്റ് നമ്മളുടെ മുഖത്ത് ഒന്ന് തട്ടി തട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം ഇത് ഭയങ്കരമായിട്ട് കോൺസൻ്ററേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ കൂടുതല് നമുക്ക് മുഖത്ത് ഇടാനും പാടില്ല അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് തുള്ളി ആണ് മാക്സിമം നമ്മള് മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ളത് ഇത് ഒരു ദിവസം രണ്ടു തവണ യൂസ് ചെയ്യണം രാവിലെയും രാത്രിയും ഞാൻ എപ്പഴും പുറത്ത് പോകുന്നത് കൊണ്ടു തന്നെ എനിക്ക് രാവിലെ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം രാവിലെ ഫേയ്സ് സിറം യൂസ് ചെയ്ത് സൂര്യൻ ആസ് സൂര്യാഘാതം നമുക്ക് കൊണ്ട് കൂടാ അതുകൊണ്ടു തന്നെ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് എനിക്ക് ഒരു മാസം കൊണ്ടു തന്നെ നല്ല ഒരു റിസൾറ്റ് ആണ് കിട്ടിയത് കാരണം ഒരു ഞാൻ യൂസ് ചെയ്ത് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞപ്പം തന്നെ എൻ്റെ മുഖത്തുള്ള കറുത്ത പാടുകള് ഡൾ ആയി തുടങ്ങാൻ തുടങ്ങി അതായത് അതിൻ്റെ കളറൊക്കെ മങ്ങി തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ മുഖത്തെ കളറ് തിരിച്ചു വരാനായിട്ട് തുടങ്ങി ഞാനൊരു ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു ആറു മാസമായി ഇത് യൂസ് ചെയ്യുന്നു ഇപ്പം എനിക്ക് പറയാൻ പറ്റും എൻ്റെ മുഖത്ത് ഒരു കുരുവും ഒരു കറുത്ത പാടുകളും കണ്ണിനടിയിലുള്ള ഡാർക്നെസ്സും അതുപോലെ തന്നെ ഇരുണ്ടും ഞാനിരിക്കുന്നില്ല എൻ്റെ യഥാർഥ കളറ് എനിക്ക് പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അത് ഈ ഗാർണിയർ സ്കിൻ നാച്ചുറൽസിൻ്റെ വിറ്റാമിൻ സി സിറത്തിൻ്റെ സഹായത്തോട് കൂടിയാണ്